ആറ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് അഞ്ച് ഒൻപതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രണ്ട് രണ്ടു രണ്ടായിരം ഇരുപത്തിമൂന്ന് നാല് രണ്ടായിരത്തി ഒൻപത്